ഞാൻ പഠിക്കുന്നത് കോമേഴ്സ് ആണ് കോമേഴ്സ്ൽ അക്കൗണ്ടൻസി എക്കണോമിക്സ് ബിസ്നസ് മലയാളം ഹിന്ദി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നീ വിഷയങ്ങളാണ് ഉള്ളത് എല്ലാ അധ്യാപകരും വിദ്യാസമ്പന്നർ ഉള്ള ഉള്ളവരാണ്